ജൂസറ് എന്നിവയെല്ലാം ഉണ്ട് പഴയ കാലങ്ങളില് ഇതൊന്നും ഇല്ലായിരുന്നു ഈ ഉപകരണങ്ങള്ക്ക് പകരം മിക്സര്ന് ഗ്രൈൻ്റര്ന്ന് പകരം ആട്ട്കല്ല് വെച്ചായിരുന്നു ഉഴുന്നും പരിപ്പും അരറ്റി അരച്ച് അരച്ചോണ്ടിരിന്നതും ഗ്യാസ് സിലിണ്ടര്ന്ന് പകരം അട്പ്പ് തീ തീ കത്തിച്ച് അങ്ങനായിരുന്നു അത് ഭക്ഷണം പാചകം ചെയ്തോണ്ടിരുന്നത് ഓവന് ഇപ്പോള് ഓവനൊണ്ട് ഓവനിപ്പം പകരം ചില തീ കത്തിച്ച് വീണ്ടും പാത്രം ചൂടാക്കി അത് വെച്ചായിരുന്നു ചൂടാക്കിക്കൊണ്ടിരിന്നത് ഇതൊക്കെയായിരുന്നു പഴയ കാല അനുഭവങ്ങൾ ഗ്രൈൻ്റര്ന് പകരം അരകല്ല് വെച്ച് തേങ്ങയും മാങ്ങായുമൊക്കെ അരച്ച് ഉണ്ടാക്കുമായിരുന്നു